ഞങ്ങളുടെ പ്രദേശത്തെ ജനപ്രിയ കളികളെന്ന് പറയുമ്പോൾ പ്രധാനമായും എനിക്ക് ഓർമ വരുന്നത് ഫുട്ബോളും ബാസ്കറ്റ്ബോളും അത്യാവിശ്യം ക്രിക്കറ്റും ആണ് പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് ആൾക്കാർ കൂടുതലും അവിടെ ഇംപോർട്ടൻസ് കൊടുക്കുന്നത് ഫുട്ബോള് കളിക്കാണ് കാരണം ഓരോ വർഷത്തിൻ്റെയും അവസാനം അടുപ്പിച്ച് ആവുമ്പോഴത്തേക്കും ആ കടപ്പുറം ഏരിയകളിൽ ഓരോ സ്ഥലത്തും ഫുട്ബോൾ ടൂർണമെൻ്റുകൾ ഉണ്ടാവും മാത്രമല്ല ഫുട്ബോള് കളിക്കുന്നതിലൂടെ ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് സ്ഥലത്ത് അപ്പോയിൻമെൻ്റ് ആയിട്ടുണ്ട് പലരും ഇന്ത്യൻ നേവിയിലും എ ജി ഓഫീസിലും കേരള ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അണ്ടറിലും എന്തിന് ആർ ബി ഐയിൽ വരെ അപ്പോയിൻമെൻ്റ് ആയിട്ടുള്ള കളിക്കാരുണ്ട് അത് മാത്രമല്ല ഫൂട്ബാളിനുള്ള ഒരു വികാരം എന്ന് പറയുമ്പം കുഞ്ഞ് കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ഒരു ദിവസത്തെ പണി കളഞ്ഞിട്ടായലും ഒരു ഒരു പെരുന്നാളിൻ്റെ ആ ഒരു ഇതിലായാലും ആൾക്കാരെ ഒന്നു കാണും അത്രയ്ക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളിയാണ് ഫുട്ബോളെന്ന് പറയുന്നത് മാത്രമല്ല അതിനുള്ള പ്രാക്ടീസുകൾ എല്ലാവരും ചെയ്യാറുണ്ട് അതിന് അതിന് അതിനൊരു പ്രത്യേകതയാണ് ഫുട്ബോൾ കളി എന്ന് പറയുമ്പം ഞാൻ എന്ത് പറയാൻ അത് എല്ലാവരും ആസ്വധിച്ചിരുന്ന ഒരു കളിയാണ് ആസ്വാധനത്തിൻ്റെ മൂർച്ചി ഭാഗത്തിൽ എത്തുന്ന ഒരു കളിയെന്ന് തന്നെയാണ് പല രീതിയിലും അടികളുണ്ടായിട്ടുണ്ട് കളിയുടെ കാര്യം പറഞ്ഞ് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ഹാപ്പിനെസുള്ള ഒരുപാട് സന്തോഷം തരുന്ന ഒരു മൂമെൻ്റ് ആണ് ഈ ഫുട്ബോള് കളിയെന്ന് പറയുന്നത് അത് അതുപോലെ തന്നെ ക്രിക്കറ്റ് കളി ക്രിക്കറ്റ് കളിക്ക് പക്ഷേ ഇങ്ങനെ നാട്ടിൽ ടൂർണമെൻ്റ് വയ്ക്കുമ്പോൾ ആൾക്കാർ അങ്ങനെ അധികം കൂടാറില്ല പക്ഷേ ഒരു കളിയെന്ന രീതിയിൽ അതിനെ ഞാൻ പ്രോൽസാഹിപ്പിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ബാസ്കെറ്റ്ബോൾ ആയാലും ബാസ്കെറ്റ്ബോളിനും അത്ര ഇംപോർട്ടൻസ് ആണ്